ഇന്നത്തെ കാലത്ത് നമ്മൾ ഉപയോഗിക്കുന്ന നമുക്ക് മൊബൈൽ ഫോൺ കൊണ്ട് വളരെയധികം പ്രയോജനം ഉണ്ട് മൊബൈൽ ഫോണുകൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന ആപ്പുകൾ സ്വിഗി ആമസോൺ ഫ്ലിപ്കാർട്ട് ഫേസ്ബുക്ക് വാട്സ്ആപ്പ് ഇൻസ്റ്റഗ്രാം കെ എസ് ആർ ടി സി കെ എസ് ഇ ബി ബുക്കിംഗ് ഗു ഇതൊക്കെയാണ് ഗൂഗിൾ പേ അതുപോലെ അ ഇതുകൊണ്ട് സ്വിഗ്ഗി ആണെങ്കിൽ നമുക്ക് ഭക്ഷണം വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഭക്ഷണം ഓർഡർ ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ ആമസോണും ഫ്ലിപ്കാർട്ടും നമ്മൾ ലൂടെയും വളരെയധികം പർച്ചേസുകൾ നടത്തുന്നു പിന്നെ വിൽപ്പനകളും നടത്തുന്നു ഫേസ്ബുക്ക് വാട്സ്ആപ്പ് ഇൻസ്റ്റഗ്രാം ഇതെല്ലാം നമുക്ക് വിവരങ്ങൾ അറിയുന്നതിനും മറ്റുള്ളവരുമായി ചാറ്റ് ചെയ്യുന്നതിനും ഒക്കെ ഉപകരിക്കുന്നു അതുപോലെ തന്നെ ന്യൂസ് മൻ അറിയുന്നതിനും ഒക്കെ വാട്സ്ആപ്പും ഗു ഗൂഗിളും ഒക്കെ നമുക്ക് ഉപയോഗിക്കുന്നു ഉപയോ ഉപകരിക്കാറുണ്ട് കേ കെ എസ് ആർ ടി സി കെ എസ് ഇ ബി ലൂടെ കെ എസ് ആർ ടി സി നമ്മൾ ബുക്കിംഗ് നടത്താറുണ്ട് യാത്രകളുടെ ബുക്കിംഗ് നടത്തുന്നു അതുപോലെ തന്നെ പൈസ അടയ്ക്കുന്നതിനും നമുക്ക് സാധിക്കാവുന്നാണ് കെ എസ് ഇ ബിയിലൂടെ നമ്മുടെ ബില്ലുകൾ അടയ്ക്കുന്നതിന് നമുക്ക് സാധിക്കുന്നു പിന്നെ ഇതുപോ ഇത് കൊണ്ട് നമുക്ക് വളരെയധികം സമയലാഭം ഉണ്ട് മൊബൈൽ ഫോൺ ഇന്ന് നമ്മുടെ ജീവിതത്തിലെ ഒഴിച്ചുകൂടാൻ ആവാത്തൊരു വസ്തുവായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇതുകൊണ്ട് നമുക്ക് വളരെയധികം സമയ ലാഭമുണ്ട് നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് അല്ലെങ്കിൽ ജോലിസ്ഥലത്ത് ഇരുന്നുകൊണ്ട് നമുക്ക് പല കാര്യങ്ങളും ചെയ്തുതീർക്കാൻ പറ്റും ഇതിനുവേണ്ടി നമ്മൾ അലയേണ്ട കാര്യമില്ല യാത്രകളും നടത്തേണ്ട കാര്യമില്ല അതുപോലെ തന്നെ നമുക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിനോ ബുക്ക് വായിക്കുന്നതിനോ പാട്ടുകൾ കേൾക്കുന്നതിനോ ന്യൂസ് അറിയുന്നതിനോ ഒക്കെ സാധിക്കും അതുപോലെ കുക്കിംഗ് അങ്ങനെ നമുക്ക് അറിയാൻ വയ്യാത്ത എന്ത് കാര്യങ്ങളും നമുക്ക് സംശയനിവാരണം നടത്തുന്നതിന് മൊബി മൊബൈൽ ഫോണും ഇൻറർനെറ്റും ഒക്കെ നമ്മളെ വളരെയധികം സഹായിക്കുന്നുണ്ട് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ ആവാത്ത ഒരു വസ്തുവായി മാറി കഴിഞ്ഞിരിക്കുന്നു മൊബൈൽ ഫോൺ പണ്ട് കാലത്ത് നമ്മൾ ഒരു വാർത്ത അറിയുന്ന ഒരു ലെറ്റർ ഇട്ടു കഴിഞ്ഞാൽ ദിവസങ്ങൾ കഴിയുമ്പോഴായിരിക്കും അതിന് മറുപടി ലഭിക്കുന്നത് ഇതിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മറ്റുള്ളവരെ വിവരങ്ങൾ അറിയിക്കുവാനും അവരുടെ വാർത്തകൾ അറിയുന്നതിനും നമുക്ക് സാധിക്കുന്നു അതുപോലെ തന്നെ ചികിത്സാരംഗത്തും ഇൻ്റർനെറ്റിനൊക്കെ വളരെയധികം പ്രാധാന്യം ഉണ്ട് പിന്നെ ഇതുപോലെ തന്നെ ആശുപത്രി സേവനങ്ങൾക്ക് നമുക്ക് ബുക്ക് ചെയ്യുന്നതിനും ഒക്കെ മൊബൈൽ ഫോണിലൂടെ സാധിക്കുന്നുണ്ട് പിന്നെ ഡോക്ടറുമായിട്ട് സംസാരിക്കുന്നതിനും മരുന്നുകളെ കുറിച്ച് അറിയുന്നതിനും ഒക്കെ നമുക്ക് മൊബൈൽ ഫോൺ ഇൻറർനെറ്റും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് നമ്മുടെ നിത്യജീവിതത്തിലെ സ ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒരു വസ്തുവായി ഇന്ന് മൊബൈൽ ഫോൺ മാറി കഴിഞ്ഞിരിക്കുന്നു മൊബൈൽ ഫോണിന് ഗുണങ്ങളെപ്പോലെ തന്നെ ദോ അപാ ദോഷങ്ങളുമുണ്ട് കുട്ടി പ്രത്ത പ്രത്യേകമായിട്ടും കുട്ടികളുടെ കാര്യത്തിൽ കുട്ടികൾക്ക് വളരെയധികം അറിവുകൾ സം സമാഹരിക്കുന്നതിന് മൊബൈൽ ഫോണുകൾ സഹായകമാണ് പക്ഷേ അത് കുട്ടികൾ ഉപയോഗിക്കുന്ന രീതി അനുസരിച്ചിരിക്കുന്നു അത് കുട്ടികൾ തെറ്റായ മാർഗങ്ങൾ പിന്തുടരുന്നതിന് ഒരുപക്ഷേ മൊബൈൽ ഫോണുകൾ കാരണമാകുന്നുണ്ട് കുട്ടികൾ ഇതിന് അഡിക്റ്റ് ആയി പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ തങ്ങളുടെ പഠനം ഉഴപ്പുന്നതിന് ഒരു സു ഉട ഉഴപ്പുന്നതിന് സാധ്യതയുണ്ട് അതുപോലെ തന്നെ പിന്നെ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതെ വരുന്നു പിന്നെ സമയം നഷ്ടം ഇതിലൂടെ ഉണ്ടാവുന്നു മറ്റ് പഠനം പഠനത്തിനായി ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതാണ് ഇതെ ഏത് ക്കാ നന്നായി വിനിയോഗിക്കുകയാണെങ്കിൽ മൊബൈൽ ഫോൺ നമുക്ക് വളരെ ഉപയോഗപ്രദമായൊരു കാര്യം തന്നെയാണ് പക്ഷേ കുട്ടികൾ അത് പലപ്പോഴും തെറ്റായ രീതിയിൽ പഠിക്കുന്നതിനും ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് കുട്ടികൾ അത് ശ്രദ്ധിച്ചുവേണം കൈകാര്യം ചെയ്യുവാനായിട്ട് മാതാപിതാക്കൾ അത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്